എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് സംരംഭങ്ങളും കാര്യങ്ങളൊന്നുമില്ലാ എങ്കിൽ പോലും എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പച്ചക്കറി അനാദി പീടിക ഉണ്ട് അപ്പോൾ ആ പീടികക്കാരൻ എന്നു വെച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ പൈസയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നതാന്ന് അരിയും പലചരക്ക് സാധനങ്ങളും സ്റ്റേഷനറി ഉത്പന്നങ്ങളും അടങ്ങുന്ന സംരംഭമാണ് ഇപ്പം സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ് ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാങ്ക് ധനകാര്യ സ്ഥാപനം എത്രത്തോളം അയാളെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രീതിയിലെന്നു വെച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ബാങ്ക് വഴിയാണ് അപ്പോൾ പൈസ നമ്മൾ അയക്കുന്നത് ഗൂഗിൾ പേ വഴി കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ഡയറക്ടറായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചില്ലറേൻ്റെ ആവശ്യമില്ല നമ്മൾ തിരിച്ചു പൈസ കൊടുക്കേണ്ട അങ്ങോട്ടേക്ക് നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി അയക്കുമ്പോൾ തീ അത് എത്രയാണോ പൈസ മുപ്പത്തി രണ്ട് രൂപയാണേ മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപയാണേ നാൽപ്പത്തി രണ്ട് രൂപ ഡയറക്ട്ടായിട്ട് എത്തുന്നു അപ്പോൾ തിരിച്ച് ബാക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു സേവനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടീട്ട് പൈസ ഇല്ലാതെ വരുമ്പോൾ ലോണായിട്ട് വ്യാപാരി ലോൺ വ്യാപാര മിത്രാ ലോൺ വ്യാപാരി ലോൺ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ലോണായിട്ട് കിട്ടുന്നുണ്ട് അത് വലിയ പ്രൊഡക്റ്റെല്ലാം വാങ്ങി അത് സെയിൽ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ആ ലോണടച്ചിട്ട് അവർ കഴിയുന്നത്